ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് ഡാൻസ് കളിക്കുന്നൊരു ഡാൻസ് കാരിയൊന്നുമല്ല എങ്കിൽ പോലും ചെറിയ രീതിക്കൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് ഞാനങ്ങനെ വലിയ കാര്യായിട്ട് ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല നാലാംകളാസ്സ്വരെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് സ്കൂളിൽ നിന്നാണ് സ്കൂളിലെ ടീച്ചറുമാരുതന്നെ സാറുമ്മാരെ അറേഞ്ച് ചെയ്തിട്ട് പഠിക്കുന്നയൊരു ഇതൊണ്ടാരുന്നു ഞങ്ങൾക്ക് ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ അങ്ങനെയുള്ളതുകൊണ്ടു തന്നെ സ്കൂളീന്നിങ്ങനെ സാറുമാര് വരുമ്പോൾ അവരുടെ അടുത്തുപോയി പഠിച്ചിട്ടുണ്ട് അവിടുന്ന് പഠിച്ച് ആനുവൽ ഡേയ്ക്ക് ഡാൻസ് കളിക്കും അങ്ങനത്തെ പരുപാടീസൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്നു പറയുന്നത് ഞാനായിട്ട് ഒരാളെ പഠിപ്പിച്ച് ചെയ്യിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞാനങ്ങനെ ഒരു അത്രക്ക് ഡാൻസ് കളിക്കുന്ന ആളല്ലാത്തതുകൊണ്ടു തന്നെ എനിക്കങ്ങനെ സ്വന്തം കളിക്കാനിതൊണ്ടാരുന്നു പക്ഷേ ഞാൻ പഠിച്ച ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് സ്കൂളിലുള്ള ആർട്സ് ഡേയ്ക്കും അങ്ങനുള്ള പരിപാടീസിനൊക്കെ ഞാൻ പഠിപ്പിച്ച് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അല്ലേൽ എൻ്റെ ജൂനിയേഴ്സൊക്കെ ഡാൻസ് കളിച്ച് അങ്ങനെയുണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് കളിച്ചിട്ടൊന്നുമില്ല ചുമ്മാ വീട്ടിലൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഞാനായിട്ട് ഓരോന്നോരോ പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കും തുള്ളും എന്നല്ലാണ്ട് പുറത്തൊരു സ്റ്റേജിൽ നാലുപേരുടെ മുമ്പിന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല